ഹലോ ആ അതെ അല്ലോ സാറാമ്മയാണല്ലാ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഓ കരവാളൂർ

ആ

ആ ഞാൻ സാധാരണ കൊടുക്കുന്നുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അത് കരവാളൂരാണെങ്കിൽ പുനലൂർ വേണോ നിങ്ങൾക്ക് അതോ അഞ്ചലിൽ വേണമോ എന്ന് നിങ്ങൾ ആദ്യമൊന്ന് സെലക്റ്റ് ചെയ്യണം കാരണം രണ്ടെടുത്തും ഒരു നാൽപ്പത് സെൻ്റ് സ്ഥലം കിടപ്പുണ്ട്

കരുവ അത് ആ ആ അഞ്ചലിൽ അഞ്ചലിൽ ഒത്തിരി പൈസ കൂടുന്നല്ലോ കാരണം ഒരു ഒരു സെൻ്റിന് മൂന്ന് ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ അത് അത് അഞ്ച് ലക്ഷത്തിൻ്റെയാണ് ഞാൻ പിന്നെ നിങ്ങൾ എനിക്ക് ആദ്യത്തെ ഒരു ആളായത് കാരണം കസ്റ്റമറായത് കാരണം ഞാൻ ഇത്തിരി അവരോട് ചോദിക്കട്ടെ അഞ്ച് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമെങ്കിലും ഞാൻ പിടിച്ച് തരാമെന്നാണ് ഞാൻ ഓർക്കുന്നത് അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൻ്റ് ജോൺസ് സ്കൂളുണ്ട് ഹോളി ഫാമിലി സ്കൂളുണ്ട് അതുപോലെ തന്നെ കോളേജ് ഉണ്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട് മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട് അത് കൂടാതെ തന്നെ പല പിന്നെ പല തരത്തില് പല ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ എല്ലാം കൊണ്ടും സൗകര്യുള്ളത് ഈ അഞ്ചലിൽ തന്നെയാണ് അന്നേരം എന്നത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഗൾഫിലാണോ അതോ യുകെയിലോ എവിടെയാണ് എവിടാ ഉണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ ശേഖരിച്ചു ഞാന് ഞാൻ ഇപ്പോൾ അയാളോടൊന്ന് ചോദിക്കട്ടെ കാരണം അയാളിപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വിളിക്കുന്നു നിങ്ങക്കാരേലും കിട്ടിയോന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട് സാറേ അപ്പം ആ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ വന്നു ഈ കോൾ അനുസരിച്ച് ഇത് ഇത് തന്നെ ഞാൻ രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി കുറയില്ലെന്ന് അപ്പം നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ ഇത് റോഡ് സൈഡുമാണ് കോളേജും പള്ളിയൊക്കെ അടുത്തായത് കൊണ്ടും ഇത് വേണെങ്കി നിങ്ങക്ക് തരാമെന്ന് ഓർത്തു കൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യുണ്ടെങ്കിൽ ഇന്നോ നാളെയോ പറയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ സമയം നോക്കിയിരിക്കുകയില്ല ആദ്യം ആര് വരുന്നവർക്ക് കൊടുക്കും ആ അപ്പോൾ ഇപ്പോഴേ പറഞ്ഞോട്ടെ നാൽപ്പത് ആ നാൽപ്പത് സെൻ്റ് സ്ഥലം ഒരു സെൻ്റിന് ഒരു സെൻ്റിന് മൂന്ന് മൂന്നര ലക്ഷമെങ്കിലും ചിലപ്പോൾ ചോദിക്കും ഞാൻ മൂന്നെന്നാ ഇപ്പോൾ പറയുന്നത് കാരണം അഞ്ച് ലക്ഷത്തിൽ നിൽക്കുന്ന സാധനം ടൗൺ ഏരിയ അല്ലേ അപ്പോൾ അവർക്ക് ഇത് പത്ത് ലക്ഷം ഒരു ലക്ഷം ഒരു സെൻ്റിന് പത്ത് ലക്ഷം വരെയുള്ള സ്ഥലമുണ്ട് ഇവിടെ അതെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഒരി ഇരുപത് സെൻ്റ് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ഞാൻ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാൽ എഴുതിക്കാനായിട്ട് പ്രമാണമൊക്കെ പിന്നെ ഇത് വാങ്ങിക്കണം അതെല്ലാം നിങ്ങളെ നിങ്ങൾ കൊണ്ടു വരണം മൂന്ന് ആ എന്നാൽ അങ്ങനെ ആകട്ടെ അപ്പോൾ അത് അത് കിട്ടൂമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവിടുത്തെ ഉടമയോടൊന്നും കൂടെ ഒന്ന് പൈസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ഓക്കെ ശരി അല്ല നിങ്ങളുടെ നമ്പറിൽ നിന്ന് ഒന്നിങ്ങോട്ട് മെസ്സേജ് ഈട്ടേക്കണം ഓക്കെ